ഒരിക്കലും ഇല്ല പാചകം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഉള്ളതായിട്ടുള്ളൊരു വർക്ക് ആയിട്ട് എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ ആരും പറയപെട്ടതോ അങ്ങനെ ഒന്നുമല്ല പിന്നെ പാചകം എല്ലാവർക്കും ചെയ്യാം വീട്ടിലുള്ള പുരുഷന്മാർക്ക് ചെയ്യാം ഇത്തിരി വലിയതായ മക്കളാണെങ്കിൽ അവർക്ക് ചെയ്യാം പിന്നെ ഇവിടെ വീട്ടിലുള്ളവരാണെങ്കില് ഹസ്ബന്റ് ആണെങ്കിലും പാചകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യലുണ്ട് മോനാണെങ്കിലും അവനെക്കൊണ്ട് പറ്റുന്ന രീതിയില് കിച്ചണില് അവനൊക്കെ പറ്റുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പാചകം ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളത് മാത്രമായിട്ടുള്ളതാണെന്നുള്ളത് എവിടെയും ഇല്ല അല്ല സോറി സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളത് ആണ് എന്നുള്ളത് എവിടെയും പറയുന്നില്ല